വൈവിധ്യമാർന്ന സസ്യജാലങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ കാണാനായിട്ട് വിനോദസഞ്ചാരികൾക്ക് സന്ദർശിക്കാവുന്ന ഒരുപാട് ദേശീയ ഉദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും കേരളത്തിലുണ്ട് ഒരുപാട് ഉണ്ട് ഇപ്പോൾ വയനാട്ടിൽ ആണെങ്കിൽ തന്നെ നമുക്ക് പറയാം വയനാട്ടിൽ ഒരുപാട് വന്യജീവി സങ്കേതങ്ങളുണ്ട് മുത്തങ്ങ പിന്നെ അതായത് തിരുനെല്ലി ഫോറസ്റ്റ് അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ സ്ഥലങ്ങളാണ് പറമ്പിക്കുളം ടൈഗർ റിസേർവ് തട്ടേക്കാട് പക്ഷി സങ്കേതം അവിടെയൊക്കെയെന്ന് വെച്ചാൽ കാണാൻ ഭയങ്കര നല്ല മനോഹരമായ കാഴ്ചകളുണ്ട് ഇങ്ങനെ വിനോദ സഞ്ചാരികൾക്കൊക്കെ അവിടെ പോയിട്ടുണ്ടേ നമുക്ക് തിരിച്ച് വരാൻ പറ്റാത്ത ഒരു അങ്ങനെ ഒരു നമുക്ക് അനുഭവങ്ങൾ ഉള്ള സ്ഥലങ്ങളാണ് പിന്നെ ചെന്ന ചിന്നാർ നെയ്യാർ വന്യജീവി സങ്കേതം അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് നമ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയ വിനോദസഞ്ചരി സഞ്ചാരി സന്ദർശിക്കാവുന്ന അതായത് സസ്യ സസ്യജാലങ്ങളെയും വൈവിധ്യമാർന്ന സസ്യജാലങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ കാണാൻ വിനോദസഞ്ചാരികൾക്ക് അവിടുന്നൊക്കെ സ് പറ്റും